കണ്ണൂർ ജില്ലയിൽ ആഘോഷിക്കുന്ന പ്രധാന സാംസ്കാരിക ഉത്സവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ എല്ലാവരും കണ്ണൂർ ജില്ലയെക്കുറിച്ച് കൂടുതലായി കേൾക്കുന്നത് തെയ്യങ്ങളെ തെയ്യങ്ങളിൽക്കുറിച്ചാണ് കണ്ണൂർ ജില്ലങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം കണ്ട് വരുന്ന അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയും കാസർകോട് ജില്ലയും കോഴിക്കോട് ജില്ലയുടെ ഓരോ ഭാഗത്ത് മാത്രം കണ്ട് വരുന്ന തെയ്യം തെയ്യം ഉൽഭവിച്ചിട്ടുള്ളത് തന്നെ കണ്ണൂർ ജില്ലയിൽ വെച്ചിട്ടാണ് കണ്ണൂർ ജില്ലക്കാരുടെ സ്വയം അഹങ്കാരം എന്ന് വേണമെങ്കിൽ തെയ്യങ്ങളെക്കുറിച്ച് പറയാം കണ്ണൂർ ജില്ലയുടെ ഏത് മുക്കിലും മൂലയിലും നിങ്ങൾ ചെന്നാലും നിങ്ങൾക്ക് തെയ്യങ്ങൾ കാണാൻ സാധിക്കും കണ്ണൂർ ജില്ലയുടെ വടക്കേ ഭാഗത്ത് ആണ് കൂടുതലായും യഥാർഥ തെയ്യം കോലങ്ങൾ കെട്ടുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് ഇല്ല എന്നല്ല എന്നാലും വടക്കേ ഭാഗത്ത് കുറച്ച് കൂടുതലാണ് ബാക്കിയുള്ള സാംസ്കാരിക ഉത്സവങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഓണം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളവർ എല്ലാവരും തന്നെ ജാതിമതഭേദമന്യേ ഓണം ആഘോഷിക്കാറുണ്ട് സുന്ദരേശ്വര ക്ഷേത്രത്തിലെ കാർത്തിക ഉത്സവങ്ങൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്നിവ ഇവിടെ പ്രശസ്തമായ സാംസ്കാരിക ഉത്സവങ്ങളാണ് പിന്നീട് പറയാനുള്ളത് മാഹി പള്ളിയാണ് കണ്ണൂർ ജില്ലയിൽ ഇല്ലെങ്കിൽ പോലും മാഹിപ്പളിയിലെ ഉത്സവങ്ങൾ കണ്ണൂർ ജില്ലക്കാർ ആഘോഷിക്കാറുണ്ട്